ആ വിവാഹ ദിവസങ്ങളിൽ വധുവിനെ വള മാല പോലുള്ള സമ്മാനങ്ങളൊക്ക കൊടുക്കാറുണ്ട് അതൊക്കെ ഇവിടെ പതിവുള്ള കാര്യം തന്നെയാണ് സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കൊടുക്കാറില്ലെങ്കിൽ കൂടി സ്വർണ്ണങ്ങളും സമ്മാനമായിട്ട് കാറ് അതുപോലെ പണം ബാങ്കിലെന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ സ്ത്രീധനത്തിൻ്റെ പേരിൽ എല്ലാവരും പറയും എങ്കിൽ കൂടി സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്ന സ്വർണ്ണം ഉൾപ്പെടെ എൻ്റെ അഭിപ്രായത്തിലത് സ്ത്രീധനമായിട്ട് തന്നെ കണക്കാക്കണം അത് ഒരു സന്തോഷത്തിൻ്റെ പേരിൽ കൊടുക്കുന്നതന്ന് പുറമെ പറയുമെങ്കിൽ കൂടി അത് സ്ത്രീധനത്തിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലാതെ കൂട്ടുകാരും ബാക്കിയുള്ള ബന്ധുക്കള് അവര് കൊടുക്കുന്നത് സ്നേഹമെന്ന നിലയ്ക്കാന്ന് നമുക്ക് പറയാം സമ്മാനങ്ങള് ബാക്കി സ്ത്രീധനം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം